ഞാന് വിദേശത്തേക്ക് പോകാന് എല്ലാം തയ്യാറായി നിൽക്കുകയാണ് എല്ലാം റെഡിയായി നില്ക്കുകയാണ് എനിക്ക് ഉടനെ പോകേണ്ടതുണ്ട് പക്ഷേ പോകണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തടസം കൂടി ഉണ്ട് കോവിഡ് വാക്സിന് കുത്തി വെക്കേണ്ടതുണ്ട് അപ്പഴ് അത് പെട്ടെന്ന് അതും വേണം അതുകൊണ്ട് അതിന്റെ സംഭവങ്ങളേക്കുറിച്ച് അറിയാനാണ് വിളിച്ചത് അതിന് എന്തൊക്കെയാണ് യോഗ്യതാമാനദണ്ഡങ്ങളെന്തെക്കെയാണ് പിന്നെ അതുപോലെ എവിടെയാണ് ഇതിന് നമ്മള് അപ്ലേ ചെയ്യേണ്ടത് എവിടെയാണ് ഇപ് ഇപ്പത്തെ പെട്ടെന്ന് കോവാക്സിന് എനിക്ക് ലഭ്യമാകുക അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങള് കുറച്ച് കാര്യങ്ങള് ഇനി എന്തൊക്കെയാണ് പനിയോ മറ്റോ ഉണ്ടെങ്കിൽ അതെടുക്കാനൊക്കുമൊ അല്ലെങ്കില് എന്തെങ്കിലും എങ്ങനെ ഏത് അവസ്ഥയിലാണ് എനിക്കെടുക്കാനൊക്കുന്നത് ശാരീരികമായി ബുദ്ധിമുട്ടുകളുള്ള സമയത്ത് പനി പോലെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കെടുക്കുന്നതിന് അസൗകര്യം ഉണ്ടെങ്കിൽ അതൊന്ന് പറയണെ കാരണം എനിക്കതനുസരിച്ച് വന്നെടുക്കാനാണ് പിന്നെ അത് എത്രയും പെട്ടെന്ന് സാധ്യമാകുന്നിടവും എവിടെയാണ് ഹെല്ത്ത് സെന്ററുകളാണൊ എവിടെയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞ് തരാമെങ്കില് വളരെ ഉപകാരമായിരിക്കും